കേരളത്തിൽ തൊഴിലില്ലാത്തതു കാരണമാണ് യുവാക്കൾ വെളിയിലേക്ക് പോകുന്നത് ഇവിടെ ഫാക്ടറികളോ സർക്കാരോ ഒന്നും ചെയ്യുന്നില്ല കേന്ദ്രസർക്കാരിൻ്റെ കുറച്ചു ഫാക്ടറികൾ ഉണ്ട് അതുകൊണ്ടൊന്നും ഇവിടെ കാര്യമില്ല അതാണ് യുവാക്കൾ വെളി രാജ്യത്തു പോയി പണിയെടുക്കുന്നത് ഇവിടെ തൊഴിലുകൾക്ക് ഫാക്ടറികൾ വരണം കമ്പനികൾ വരണം എന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ യുവാക്കൾക്ക് അതു ജോലിയായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ പിന്നെ വെളിയിൽ പോയെങ്കിലും അവിടെ നല്ല ജോലികളൊന്നുമില്ല ഇവിടുത്തെ കൂടുതൽ ഒന്നുമില്ല അവിടെയും പക്ഷേ ഇവിടുത്തെ പണി ഇവിടെ ജോലി ബെസ്റ്റുമ്മാർ വിദ്യാഭ്യാസം ഉള്ളവരുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല കേന്ദ്രസർക്കാർ കുറച്ചെങ്കിലും ചെയ്യുന്നുണ്ട് കേരളസർക്കാർ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ജോലിയില്ല അത് കാരണം മുഖ്യ വീടുകളിലും എല്ലാവരും വെളി രാജ്യത്ത് പോയിരിക്കുകയാണ് പിന്നെ വേറെ കമ്പനികൾ എന്നു പറയുന്ന ഒന്നുമിവിടില്ല ഉള്ള കമ്പനികളൊക്കെ ഇവിടെ നിന്ന് പൂട്ടി കൊണ്ടിരിക്കുകയാണ് വേറെയുള്ള സ്റ്റേറ്റിലേക്ക് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഒന്നുമില്ല കേരളത്തിലുള്ള കമ്പനികൾക്കെല്ലാം പൂട്ടി അല്ലെങ്കിൽ പൂട്ടിച്ച് വേറെ സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കാ തമിഴ്നാട് കർണാടക അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ നിന്നാണ് നമ്മളുടെ ഇവിടെ കേരളത്തിലേക്കുള്ള സാധനങ്ങൾ തന്നെ ഇറക്കു അതുകൊണ്ടൊക്കെ തന്നെയാണ് യുവാക്കൾക്ക് പണി ഇല്ലാതായി വരുന്നത്